എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഹെയർ ഓയിലാണ് ഞാൻ മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അമ്മിണിയമ്മ ഏന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആദിവാസി യുവതി ചെയ്യുന്ന എണ്ണയായിരുന്നു കുറേ റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മേടിച്ചതാ അപ്പോൾ അത്യാവശ്യം നല്ലൊരു പിന്നെ ഓയിൽ തന്നെയാണ് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കില് എനിക്ക് ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലായിരുന്നു അതായത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ളൊരു ഒരു മുടി കൊഴിച്ചിലായിരുന്നു വല്ലാണ്ട് എല്ലാവരും പറഞ്ഞു ഡെലിവറി കഴിഞ്ഞതിന്റെയാണെന്ന് അപ്പോൾ പിന്നെ കുറേ മുടി പോവാൻ തുടങ്ങി അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇങ്ങനെ ഡെലിവറി കഴിഞ്ഞുവെന്ന് പറഞ്ഞ് നമ്മള് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ നമ്മളാ മുടി പോവുന്നതിൻ്റെ സൊല്യൂഷനെന്തെങ്കിലും കാണണ്ടേ അപ്പോൾ അങ്ങനെയാണ് ഞാൻ അമ്മിണിയമ്മേൻ്റെ ഹെയർ ഓയിൽ യൂസ് ചെയ്തത് അതായത് ഒരൂ ആദ്യമൊരു ബോട്ടിൽ മേടിച്ച് ആ ഒരു മാസത്തേക്കുണ്ടായിരുന്നു നൂറ് മില്ലിയോ ഇരുന്നൂറ് മില്ലിയൊ അങ്ങനെയെന്തോ ആയിരുന്നു അത്യാവശ്യം റേറ്റുണ്ട് മുടീൻ്റെ അതായത് നല്ല വ്യത്യാസമുണ്ട് അതായത് ഒരു രണ്ടാഴ്ച തേച്ചപ്പോൾത്തന്നെ നല്ല വ്യത്യാസം മുടി കൊഴിച്ചിലും ഇതൊക്കെ നല്ലോണം കുറഞ്ഞു അപ്പോഴെന്നുവെച്ചിട്ടുണ്ടെ ങ്കില് ഇനിയിപ്പോൾ ഞാൻ പിന്നെയും ഒരു ബോട്ടിലും കൂടെ അതായത് ഇത് തീരുന്നതിന് മുമ്പേ ഒരു ബോട്ടിലും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലതാണ് മുടി കൊഴിച്ചിലും താരനും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതായത് ഡ്രൈ ആയിരിക്കുന്ന ഹെയറൊക്കെ റെഡിയാവുന്ന നല്ല നല്ലൊരു ഹെയർ ഓയിലാണ്